പത്രത്തിലും റേഡിയോയിലും വീട്ടമ്മമാർക്കായി പ്രത്യേക വിഭാഗം വേണമെന്ന് തീർച്ചയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീകൾ ഇന്ന് വളരെയേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് പറയുവാനും അതിനുള്ള പരിഹാരം തേടുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പറയാനൊക്കെയായിട്ട് വി പത്രത്തിൻ്റെയും റേഡിയോയുടെയും ഒക്കെ നമുക്ക് സഹായം വളരെയേറെ അത്യാവശ്യമായിട്ടുണ്ട് അതു പോലെ തന്നെ സ്ത്രീകൾക്ക് അവരൊരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവർ ഒത്തിരിയേറെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള അതിനു വേണ്ടി മാത്രമായിട്ടുള്ള മാസികകളും ഒക്കെ ഇപ്പോൾ ധാരാളമായിട്ടുണ്ട് എന്നു പറഞ്ഞാൽ പാചകത്തിലൊക്കെ സ്ത്രീകളിൽ നിന്നു വളരെയേറെ മുന്നേറുന്നു അവർ സോഷ്യൽ മീഡിയയിലൂ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒത്തിരിയേറെ പാചക കാര്യങ്ങൾ എല്ലാം അവർ പറയുന്നുണ്ട് അപ്പം അതെല്ലാം ലോകം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കെല്ലാം അതെത്തി ചേരുവാനായിട്ടും ഒക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ത്രീകളുടെ സ്ത്രീകൾ ജീവിതത്തിൽ ഉയർന്ന് വരുവാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും എല്ലാം സ്ത്രീകൾക്കുയരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ അതും ബ്യൂട്ടിപരമായിട്ടുള്ള പല ആവശ്യ കാര്യങ്ങളിലും എല്ലാം അവർക്ക് അവരുടെ അഭിപ്രായങ്ങളെല്ലാം പറയുവാനായിട്ടും ഒക്കെ ഈ മാസികകൾ മാസികകളൊക്കെ അതു ധാരാളമായിട്ട് അവരെ സഹായിക്കുന്നുണ്ട് അതു പോലെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ഒക്കെ വളരെയേറെ കാര്യങ്ങൾ ഇന്ന് മാസികകളിലൂടെ എല്ലാം ഇന്ന് പറയുന്നുണ്ട് അതെല്ലാം സ്ത്രീകൾക്ക് വളരെയേറേ സഹായകരമാണ് പിന്നെ സ്ത്രീകൾ ഓരോ സമൂഹത്തിലും സ്ത്രീകൾ നേരിടുന്ന പല പല പല പല കാര്യങ്ങളുണ്ട് ആ അതിനെക്കുറിച്ചെല്ലാം അവർക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം വേണം അതിനു വേണ്ടിയൊക്കെ പത്രവും റേഡിയോയും ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം ഒത്തിരിയേറെ സഹായങ്ങൾ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അതു പോലെ തന്നെ ആരോഗ്യപ്രചേന്ന് ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഒത്തിരിയേറെ സ്ത്രീകൾക്കും എല്ലാം ഒക്കെ ഇന്ന് വ്യാപകമായിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള ഈ നാടിനായിട്ടുള്ള ഓരോരോ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചും എല്ലാം ഈ മാസികകളിലും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതു പോലെ തന്നെ അവർ അവരുടെ ഒരു പ്രായമായി കഴിയുമ്പോഴൊക്കെയെല്ലാം അവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാമുണ്ട് മാനസിക പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതിനോടൊക്കെ ഒരു സഹായം തേടുവാനായിട്ടൊക്കെ അതിനൊക്കെ ഒരു സഹായം തേടുവാനായിട്ടൊക്കെ ഈ മാസികകളിൽ നിന്നെല്ലാം അവർക്ക് സാധിക്കുന്നുണ്ട് അതിനു വേണ്ടിയായിട്ടുള്ള ഒരു വിദഗ്ധരായിട്ടുള്ള പരിശീലനം നേടിയ ആളുകളെ തന്നെ അവർക്കു വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടി ഈ പത്രങ്ങളും റേഡിയോകളും ഒക്കെ അതിന് ആ ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രമായിട്ട് സ്ത്രീകൾക്ക് വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സ്ത്രീകൾ നേരിടുന്ന അവർ സമൂഹത്തിലായാലും കുടുംബങ്ങളിലായാലും എല്ലാം സ്ത്രീകൾ നേരിടുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് ഗാർഹിക പീഡനങ്ങളുണ്ട് അങ്ങനെയെല്ലാം ഉള്ളത് അതെല്ലാം അവർക്ക് അതൊക്കെ ഒന്ന് പങ്ക് വെക്കാനും ഒക്കെയായിട്ടും എല്ലാവർക്കും കുറേ ഒരു ഒരു ഒരിത് ഒരു സഹായമവർക്ക് വേണം അതൊക്കെ ഈ റേഡിയോയിലും പത്രത്തിലും ഒക്കെ വീട്ടമ്മമാർക്കായിട്ട് അവർക്കൊരു പ്രത്യേക ആയിട്ടൊരു പരിഗണന ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യം അവർക്ക് വേണ്ടുന്നത് തന്നെയാണ് അതു പോലെ തന്നെ സ്ത്രീകൾ ഒരു മറ്റ് ആരുടെയും മുമ്പിലും ഒന്നും ഒരു ഒന്നും കൈ നീട്ടി നിൽക്കേണ്ട നിൽക്കാൻ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അവർക്ക് അവർ ഒരു സ്വയം പര്യാപ്തതയിൽ എത്തി ചേരുവാനായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം സ്ത്രീകൾക്ക് വേണം അപ്പം അതിന് വേണ്ടിയൊക്കെ അവർക്ക് സംസാരിക്കണമെങ്കിൽ ഈ പത്രങ്ങളിലൂടെ റേഡിയോയിലൂടെയും ഒക്കെ അവർക്ക് അതിനു വേണ്ടി വേണ്ട ഒരു സഹായം ഇവർക്ക് സ്വയംപര്യാപ്തതയെത്താൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി അവർക്കു പല പല കാര്യങ്ങളുണ്ട് അതു പോലെ പാചക കലകൾ അതു പോലെ തന്നെ ഇന്ന് പല കാര്യങ്ങളെക്കുറിച്ചും സ്ത്രീകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിലുള്ള മറ്റ് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പറഞ്ഞ കൊടുത്തക്കത്തക്ക രീതിയിലുള്ള ഓരോ കാര്യങ്ങളും അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അത് ഓരോ സ്ഥലങ്ങളിലെ ജില്ല തിരിച്ചോ അതു പോലെ തന്നെ അവർ താമസിക്കുന്ന അവരുടെ ആ ടൗൺ ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള അടുത്തൊക്കെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമായിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ സ്ത്രീകൾ അങ്ങനെ മുന്നോട്ട് വരണം സ്ത്രീകൾ ഒരിക്കലും ഒരു താഴെ ഒരു താഴക്കെട്ടിലായിട്ട് താഴെക്കിടകയിലേക്ക് നിൽക്കേണ്ട വ്യക്തികളല്ല സ്ത്രീകളെപ്പോഴും മുന്നോട്ട് വരേണ്ടതാണ് അവർ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഒരു പ്രധാനപ്പെട്ട പാർട്ടായിട്ടു തന്നെ സ്ത്രീകൾ വരണം സ്ത്രീകൾ മുന്നോട്ടിറങ്ങിയാൽ മാത്രമേയുള്ളൂ സ്ത്രീ കുടുംബം കുടുംബം ഉയർച്ചയിലേക്ക് വരുന്നുള്ളൂ സമൂഹം ഉയർച്ചയിലേക്ക് വരുന്നുള്ളൂ അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പം വരും വരാഴികളായിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളിലും ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടി അതിനു വേണ്ടി അതിനു പരിശീലനം നേടിയിട്ടുള്ള പലരെയും പരിശീലനം നേടിയിട്ടുള്ളവർ സ്ത്രീകൾക്കു വേണ്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ഒരു സഹായമാണ് ഈ പത്രവും റേഡിയോയും മാസികകളും ഇങ്ങനെ കോളങ്ങളും ഒക്കെ ഇതിനെല്ലാം ഒരു പ്രത്യേക സഹായകരമാണ് അപ്പോൾ സ്ത്രീകൾ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ച് വിജയിച്ചു പോയ ജീവിതത്തിൽ വിജയിച്ചു പോയ പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോ സ്ത്രീകൾക്കും അവ ഒരു അതൊരു പ്രത്യേക പ്രചോദനമായി മാറുന്നുണ്ട് അപ്പം അങ്ങനെ മറ്റ് അങ്ങനെ മറ്റുള്ള ജീവിതത്തിൽ ഒരു പല മേഖലകളെയും വിജയിച്ചവരുടെ ഓരോ വിജയങ്ങളെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളും സ്ത്രീകൾ കേൾക്കുന്നതും അതിനെക്കുറിച്ച് അറിയുന്നതുമെല്ലാം അവരുടെ ജീവിതത്തിലും വലിയൊരു ഒരു മോട്ടിവേഷൻ അവർക്ക് കാരണമായി തീരുന്നുണ്ട് അങ്ങനെ സ്ത്രീകൾ ജീവിതത്തിൽ വിജയിച്ചവരുടെയൊക്കെ കഥകളും കാര്യങ്ങളും എല്ലാം കേൾക്കണം അതിന് മാസികകളും കോളങ്ങളും എല്ലാം സഹായകരമായിട്ടുണ്ട് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ വളരെ ഉയർന്ന നിലയിലേക്ക് പോകുന്നുണ്ട് അത് ജീവിതത്തിൽ ഉയർന്നു പോയ താഴെ വളരെ തകർന്നു കിടന്നിട്ടും ഉയർന്നു പോയ പല സ്ത്രീകളുടെയും അനുഭവ പാഠങ്ങൾ കേട്ടും എല്ലാമാണ് സ്ത്രീകളിങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയാണ് അവരും അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നതും അവർക്കു വേണ്ടി അവർ പരിശ്രമിക്കുന്നതും അങ്ങനെ പാചക പാചകത്തിലൂടെയും അങ്ങനെയുള്ള ഓരോ ഓരോരുത്തരം വർക്കുകളിലൂടെയുമൊക്കെ അവർ ജീവിതത്തിൽ അവരും മെച്ചപ്പെടാനായിട്ട് ഒരു സ്വയം പര്യാപ്തതയിൽ എല്ലാം എത്തിച്ചേരുവാനായിട്ട് അവർക്ക് ഇന്നത്തെ സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട് ഇതെല്ലാം വളരെയേറെ അപ്പോൾ ഈ പത്രവും റേഡിയോയും എല്ലാം അതിനു വേണ്ടി ഒരു പ്രത്യേക സഹായകമായിട്ട് തീരുന്നുണ്ട് അത് വേണമെന്നു തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്